ബ്രെഡ്ഡും ജാമും അല്ലെങ്കില് ആ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കില് മുട്ട വെച്ചിട്ടുള്ള എന്തെങ്കിലും ബുള്സൈ അല്ലെങ്കില് ബ്രെഡിന്റെ ഉള്ളില് മുട്ട ഓംലെറ്റ് ആക്കി വെച്ച അത് കഴിക്കും അല്ലെങ്കില് പഴം ഇരിപ്പുണ്ടെങ്കില് പഴം വെച്ച് പഴം വാട്ടിയത് കഴിക്കും ഇങ്ങനെ എന്തെങ്കിലും പിന്നെ അതുപോലെ കോണ്ഫ്ലെക്സൊ കോൺ കോണ്ഫ്ലെക്സൊ ഒക്കെ ഉണ്ടെങ്കില് അത് പാലില് ഒഴിച്ച് അത് കഴിക്കും അല്ലെങ്കില് വെറും ഒരു ചായ കുടിക്കും അല്ലേൽ റസ്ക് ബിസ്ക്കറ്റ് അതൊക്കെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കില് അത് കഴിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് ഈ രിതിയിലാണ് പോകാറ് ഞാന് പതിവായി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാന്നു ചോദിച്ചാല് ചേരുവയൊക്കെ ചേരുവകയൊക്കെ കുറവുള്ള സമയത്ത് എന്തെങ്കിലും ഉള്ളി ഉള്ളി ഇരിപ്പുണ്ടെങ്കില് ഉള്ളിക്കറി പോലെ എന്തെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെയാണ് അക്കാറ്